മാധ്യമങ്ങളിലും വിദ്യാഭ്യാസം സമ്പ്രദായത്തിലും മലയാള ഭാഷയ്ക്ക് മതിയായ പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാധ്യമങ്ങൾ ഞാനീയൊരു കാലഘട്ടത്തില് മാധ്യമങ്ങളുടെ ഉപയോഗം അത് ശ്രദ്ധിക്കുമ്പോള് മാധ്യമങ്ങള് നല്ല രീതിയില് തന്നെ മലയാള ഭാഷ ഉപയോഗിക്കുന്നുണ്ട് അവരൊരു വിധത്തിലും ഇന്ന് മറ്റൊരു ഭാഷകളിലേക്ക് കുടിയേറുവാനോ മറ്റൊരു ഭാഷ ഉള്ക്കൊള്ളിക്കുവാനായിട്ടോ ഒന്നും അവർ ശ്രമിക്കുന്നില്ല മലയാള ഭാഷയുടെ പ്രധാന്യം ഉള്ക്കൊണ്ടിച്ചത് ഉള്ക്കൊള്ളിച്ച് തന്നെ മലയാള ഭാഷ നല്ല രീതിയില് തന്നെ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാല് വിദ്യാഭ്യാസം സമ്പ്രദായം ഇന്ന് കൂടുതലും മലയാള ഭാഷയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം വളരെ കുറവാണെന്നാണ് ഞാന് മനസ്സിലാക്കുന്നത് കാരണം ഇന്ന് ഇങ്ക്ളീഷ് വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം ഇന്ന് ഉയരുകയാണ് നമ്മക്കറിയാവുന്നത് പോലെ തന്നെ ഇങ്ക്ളീഷ് ഒരു ഇന്റര്നാഷ്ണല് ഒരു ഗ്ലോബല് ആഗോളതലത്തിലുള്ള ഒരു ലാങ്വേജാണെങ്കില് തന്നെയും മാതൃഭാഷ മറന്നുകൊണ്ടുള്ള ഒരു ഇംഗ്ലീഷ് ഭാഷ പഠനം അല്ലെങ്കില് മറ്റു ഭാഷാ പഠനങ്ങള് കേരളത്തില് വളരെ വലുതാണ് എന്നാല് മലയാളഭാഷ ഉപി കുട്ടികള് ഉള്പ്പടെ മലയാളഭാഷ ഉപയോഗിക്കുന്നതിന്റെ കുറവ് വളരെ വലുതാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും വിദ്യാഭ്യാസ രീതിയുമാണ് ഇങ്ക്ളീഷ് സംസാരിച്ച് മലയാളം സ്കൂളുകളില് സംസാരിക്കുമ്പോള് ഫൈന് വരികയും അതുപോലെ തന്നെ മാതൃഭാഷ ഉപയോഗിക്കുന്നത് വളരെ തെറ്റാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യസം സമ്പ്രദായം നമ്മുടെ ഇടയില് ഇന്ന് കൂടി വരികയും ചെയ്യുകയാണ് കൂടുതലും മലയാളം മീഡിയത്തിലുള്ള കുട്ടികളിലും കൂടുതലും കേരളം സിലബസ് പഠിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ന് മലയാളഭാഷ ഉപയോഗിക്കുന്ന പ്രാധാന്യം കൂടി വരുന്നത് എന്നാലവിടെയും ഇന്ന് ഈ കാലഘട്ടത്തില് ഇമ്പോട്ടന്സ്സ് അതിന്റെ പ്രാധാന്യം കുറഞ്ഞുവരുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നാല് ഇവിടെ മധ്യമങ്ങളെ നമ്മളൊന്ന് ഉദാഹരണമായിട്ടെടുത്തു വെച്ച് നോക്കുമ്പോള് വൈകുന്നേരങ്ങളിലുള്ള അവരുടെ പത്ര മാധ്യമ പ്രസ്താവനകളിലും അതുപോലെ തന്നെ ഡിബേയ്റ്റ്കളിലെക്കെ വളരെ നല്ല രീതിയിലുള്ള മലയാളഭാഷയുടെ ഉച്ഛാരണങ്ങള് വളരെ നല്ല മലയാള ഭാഷ അവരുപയോഗിക്കാനായിട്ട് ഓരോ മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട് ഐന്റെ കൂട്ടത്തില് വളരെ വേഡുകളൊ മിഗ്ലി മറ്റ് വേഡുകളൊ ഒന്നും വരാതെ മലയാറ്റ് ഭാഷ ഭാഷകളിലെ വാക്കുകളൊന്നും വളരെ വരാതെ വളരെ നല്ല രീതിയിൽ മലയാളഭാഷ ഉപയോഗിക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അപ്പം അത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസം സമ്പ്രദായം വളരെ പുറകോട്ടാണ് എന്നാല് മാധ്യമങ്ങള് വളരെ മുതിയ മുന്നോട്ടാണ്